സാങ്കേതികവിദ്യ ഒരു എന്താ പറയുക പുരോഗമിച്ചതോടുകൂടി നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഒരു ഒരുപാട് സമയമെടുത്ത് ചെയുന്ന കാര്യങ്ങളൊക്കെ വിത്തിൻ സെക്കൻ്റ്സ് തീർക്കാൻ പറ്റും ഇപ്പം ചാറ്റ് ജി പി റ്റിയൊക്കെ പോലെയുള്ള എ ഐ പ്ലാറ്റ്ഫോമുകൾ വന്നപ്പോൾ നമ്മളൊരുപാട് റിസേർച്ച് ചെയ്തു കണ്ടുപിടിച്ച് നമ്മൾ ആയിട്ടൊരു ലാംഗ്വേജുണ്ടാക്കി നമ്മൾ എഴുതിക്കൊണ്ടിരുന്ന പ്രൊജക്ടുകളാണെങ്കിലും എല്ലാം നമുക്ക് പെട്ടെന്ന് ചെയ്യാൻപറ്റും ഇപ്പം റെസിപ്പികളാണെങ്കിലും ഇപ്പം മറ്റേ മെറ്റ എ ഐ ചാറ്റ് ജി പി റ്റിയൊക്കെ പോലെ ആണെങ്കിലും നമ്മൾ യൂട്യൂബിൽക്കയറി ആ അവർ പ്രെസൻ്റ് ചെയ്യുന്ന പ്രെസൻ്റേഷൻ മൊത്തം ഇരുന്ന് കണ്ട് നമ്മൾ ആ റെസിപ്പി മനസ്സിലാക്കുന്നതിന് സിംമ്പിളായിട്ട് എന്താ പറയുക സിംമ്പിൾ വേർഡ്സിൽ നമ്മൾക്ക് റെസിപ്പീസാണെങ്കിലും നമ്മൾക്ക് കിട്ടും നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളിൽ പകുതി ഇത് പിന്നെ അത് മാത്രമല്ല വാഷിങ്ങ് മെഷീൻ ജി റ്റി ഓവൻസ് പിന്നെ എയർ ഫ്രയർ പിന്നെ ഇത് മിക്സി അങ്ങനത്തെ നമ്മൾ ഗൃഹോപകരണങ്ങളിൽത്തന്നെ ഒരുപാട് ചോപ്പിംഗ് മെഷീൻസ് ഉണ്ട് ഷെയ്ക്കേർസ് ഉണ്ട് കെയ്ക്ക് കെയ്ക്ക് ബെയ്ക്കേഴ്സ് മാത്രായിട്ടുണ്ട് ഗ്രില്ലിങ്ങ് മെഷീനുണ്ട് അങ്ങനെ നമ്മുടെ ഈ അമ്മമാരുടെ ഈ ജോലിക്കൊക്കെ പോകുന്ന അമ്മമാരുടെയൊക്കെ എന്താ സമയം ലാഭിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പം നമ്മൾ എക്സാമ്പിള് എ റ്റു ഇസെഡ് കാര്യങ്ങൾ നോക്കിയാൽ രാവിലെ നമ്മൾ എണീക്കുന്നു എണീക്കാൻ നമ്മളെ അടുത്ത് ഫോണിൽ അലാം വെക്കുന്നതുകൊണ്ട് നമുക്ക് ടൈം അറിയാൻ പറ്റുന്നുണ്ട് നമ്മൾ രാവിലെ എണീറ്റു രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ആദ്യം ബാത്ത് റൂമിൽ പോവും പണ്ടത്തെ കാലത്താണെങ്കിൽ നമ്മൾ കപ്പി മറ്റേ കയറൊക്കെ കൊണ്ടുപോയി തോട്ടിൽ നിന്നോ ആറ്റിൽ നിന്നോ ഒക്കെ അല്ലെങ്കിൽ കിണറ്റിൽ നിന്നോ ഒക്കെ വെള്ളം കോരി കൊണ്ടുവന്ന് ടോയ്ലെറ്റിൽപ്പോയി എഫ്ഫേർട്ട് എടുക്കുന്നതിലും ഈസിയാണ് ഇപ്പോൾ കണക്ഷൻസായി നല്ല ഭയങ്കര സീറ്റിങ്ങ് കംഫെട്ടബിൾ ഉള്ള ക്ലോസെറ്റുകളായി ഫ്ലെഷായി അങ്ങനെ അത് പ്രഭാത കൃത്ത്യങ്ങൾക്കൊക്കെ അങ്ങനെ അടുത്ത് വരുമ്പം ബ്രെയ്ക്ഫാസ്റ്റ് ഒരു രാവിലെ ഒരാൾ ബ്രെയ്ക്ഫാസ്റ്റുണ്ട് ഒരമ്മ അല്ലെങ്കിൽ ആ വീട്ടിലെ ഫുഡുണ്ടാക്കുന്ന ആൾ നിൽക്കും എത്ര ടൈം എടുത്തിട്ടാണ് ഇപ്പോൾ ഈ അടുപ്പിലൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഗ്യാസ് വന്നു ഇൻഡക്ഷൻ വന്നു ആൻഡ് അറ്റ് എ ടൈമിൽ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി ഇപ്പം ഇൻസ്റ്റൻ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ഈ കോഫി മേക്കേഴ്സ് വന്നു അപ്പോൾ ആൾക്കാർക്ക് തന്നെ അതായത് അടുപ്പും തീയും ഒന്നും തൊടേണ്ട തന്നെ ചെയ്യാൻ പറ്റും കോഫിയൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ കോഫി മേക്കേഴ്സ് ഉണ്ട് റ്റീ മേക്കേഴ്സ് ഉണ്ട് നമ്മൾക്ക് നമ്മൾക്ക് ഇൻ്റർനാഷണലി ആഗഹിക്കുന്ന ക്വിസ്സിങ്ങ്സ് നമുക്ക് നമ്മുടെ കിച്ചണിൽ തന്നെ നമുക്ക് അതിനുള്ള സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും ബ്രെയ്ക്ഫാസ്റ്റ് കഴിഞ്ഞു ആഫ്റ്റർ ബ്രെയ്ക്ഫാസ്റ്റ് ജോലിക്ക് പോകുന്നവരാണ് കുട്ടികൾ സ്കൂളിൽ പോകുന്നവരാണ് നടന്നതൊക്കെ കഷ്ടപ്പെട്ട് പോകുന്നതെന്ന് എത്രയോ ബെറ്ററാണ് നമുക്ക് ടെക്നോളജി വന്നു സൊ എലെക്ട്രിക്ക് കാറുകൾ വന്നു പിന്നെ ഊബറ് ബുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് എവിടെ ഏത് ഡെസ്റ്റിനേഷനിലാണ് പോകുന്നത് പോണ്ടതെന്ന് വച്ചാൽ നമുക്കതിൻ്റെ ട്രാഫിക്ക് എത്ര ഉണ്ടാവുമെന്ന് അറിയാൻ പറ്റും അതിനനുസരിച്ച് നമുക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും ആൻഡ് ഈവൻ ഹോം എന്താ പറയുക അസിസ്റ്റൻസ് ഉണ്ട് അലക്സാ പോലെ വെതെർ അറിയാൻ പറ്റും ടൈം അറിയാൻ പറ്റും നമ്മൾ ഇത് ചെയ്തുവച്ച ഷെഡ്യൂള് പോലെയാണ് എന്തൊക്കെയാണെന്നറിയാൻ പറ്റും ഒന്നും നമ്മൾ എഫേട്ടിടേണ്ട ആവശ്യം വരുന്നില്ല എല്ലാം നമ്മളെ ഓർമ്മിപ്പിക്കും നമ്മൾ വീട് ലോക്ക് ചെയ്യുകയാണ് സി സി റ്റി വി നമ്മൾ ഓട്ടോമേഷൻ ലോക്ക് സിസ്റ്റങ്ങൾ എ ഐ സെൻസർ കണ്ണെക്റ്റർ ലോക്ക് സിസ്റ്റംസ് നമ്മളെ സെക്യൂരിറ്റി അത് നല്ലോണം ഉറപ്പ് വരുത്തും പിന്നെ പിന്നെ ചെയ്യാനാണെങ്കിൽ നമുക്ക് എന്താ ആ സ്കൂള് വിട്ട് വരുന്ന കുട്ടികൾ മാത്രമാണ് വീട്ടിലെങ്കിൽ നമുക്ക് അതിൻ്റെ സർവൈലൻസ് ക്യാമറ പിന്നെ ഈ കുട്ടികൾക്കാണെങ്കിൽ വീഡിയോ ഗെയിമിങ്ങ്സ് അവർക്ക് പല രാജ്യങ്ങളും ആയിട്ട് കണെക്ട് നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ വേറെ രാജ്യങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ അവരും ഒക്കെയായിട്ട് കണെക്ട് ചെയ്യാൻ പറ്റും ഈസി കണക്ഷനാണ് കണ്ട് സംസാരിക്കാം ഫേസ് ടൈമിങ്ങ്

ആൻഡ് ഞാൻ എൻ്റെ ഒരു ഡെയ്ലി റുട്ടീൻ തന്നെയാണ് ഞാൻ ഈ പറയുന്നത് കുക്കിങ്ങിനാണെങ്കിലും പ്രൊജെക്ടുകൾ ചെയ്യുകയാണെങ്കിലും ഈവൻ ഞാനിപ്പോൾ ഒരു ആർക്കിടെക്ച്വർ സ്റ്റുഡെൻ്റാണ് അല്ല ആർക്കിടെക്ടാണ് അപ്പോൾ ഞാൻ സ്റ്റുഡെൻ്റായിരുന്നപ്പോൾ ഷീറ്റൊക്കെ ഞാൻ കഷ്ടപ്പെട്ടതിൻ്റെ എഫേട്ട് എടുത്തിരുന്നത് വരയ്ക്കുന്നതിൽ എത്രയാണ് പറ്റുകയാണെങ്കിൽ ഇഷ്ടം പോലെ സോഫ്റ്റുവെയറുകൾ സോഫ്റ്റ്വെയറുകളായി ഇനി ആ സോഫ്റ്റ്വെയറുകളുണ്ടാക്കാൻ ഞാൻ കുറേ എഫേട്ട് എടുക്കണമായിരുന്നു ഇപ്പോഴത് എ ഐ സോഫ്റ്റ്വെയറുകളായി ആൻഡ് വൈഫൈ നെറ്റ് ഡേറ്റ ഒക്കെ ഉള്ളതുകൊണ്ട് ഇഷ്ടംപോലെ ഉപയോഗങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പം എനിക്ക് സോഫ്റ്റ്വെയറുകൾ യൂസ് ചെയ്ത് ഞാൻ ഉദ്ദേശിക്കുന്ന ഡിസൈനുകൾ എനിക്ക് ലൈവായിട്ട് അല്ലെങ്കിൽ റിയലിസ്റ്റിക്കായിട്ട് റെൻ്റർ ചെയ്ത് എനിക്ക് ക്ലയിൻ്റുകളെ കാണിക്കാനും പ്രെസെൻ്റ് ചെയ്യാനും അതവർക്ക് ഈസിയായിട്ട് മനസ്സിലാക്കിക്കൊടുക്കാനും ഒക്കെ പറ്റി എൻ്റെ അതേപോലെ ആണ് എല്ലാ എന്താ വീട്ടിലിരിക്കുന്ന ഇപ്പം എന്തെങ്കിലും ഒരപകടം പറ്റിയാൽത്തന്നെ പെട്ടെന്ന് അലേർട്ടുകൾ വരും ഇപ്പെന്നെനിക്കൊരു അപകടം പറ്റി എനിക്ക് ആരേയും വിളിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ ഫോണിൽത്തന്നെ അതിനുള്ള സിസ്റ്റംസ് ഉണ്ട് നമ്മളെ ഫോണിൻ്റെ ഒരു നോർമൽ ഷെയ്ക്കിങ്ങിനെകാട്ടിലും കൂടുതൽ ഷെയ്ക്കിങ്ങ് വന്നാൽ എമർജൻസി കോള് പോവും നമുക്ക് ഇഷ്ടംപോലെ സെറ്റിങ്ങുകളായി നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ആംബുലൻസാണെങ്കിലും പോലീസിനാണെങ്കിലും കൺട്രോൾ റൂമിനെയാണെങ്കിലും കൺട്രോൾ ചെയ്യാനുള്ളൊരു ഇതായി അപ്പം ഇറ്റ്സ് ബെറ്റർ പക്ഷെ ആൾക്കാരെ പക്ഷെ അതിനുള്ളൊരു എല്ലാത്തിനും ഒരു പ്രോസ് ആൻ കോൺസ് ഉള്ളതുപോലെ ആൾക്കാരെ എഫേട്ട് ചെയ്യുന്ന ചിന്തിക്കുന്ന അവരുടെ കഴിവുകൾ നഷ്ടപ്പെടുകയും നശിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് ടെക്നൊളജികൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളും ഉണ്ടായിട്ടുണ്ട്